കൂടുതലും ഞാൻ ഓൺലൈൻ ആണ് നോക്കുന്നത് പിന്നീട് ചില സുഹൃത്തുക്കളോട് ചോദിക്കും ഈ പാറ്റേൺ കൊള്ളാം അപ്പം ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തുവെച്ചിട്ട് ഈ പാറ്റേൺ കൊള്ളാമോ എന്ന് അവരോട് തന്നെ ചോദിക്കും അവർക്കുകൂടെ ഇഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും ഞാൻ ആ പാറ്റേണ് ചെയ്യാറ് പിന്നീട് ഇതിനായിട്ട് ഞാൻ കൂടുതലും ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ട ബ്രാൻഡെന്നു പറഞ്ഞാൽ സാറായുടേതാണ് സാറായുടെ ബ്രാൻഡിൻ്റെ ആ ഡിസൈനാണ് ഞാൻ കൂടുതലും നോക്കാറ് അത് ഗൂഗിളിൽ സർച്ച് ചെയ്യും അവരുടെ ന്യൂ പാറ്റേൺ ഡിസൈനുകൾ എന്നും വെച്ച് വലിയ ഫാഷനബിൾ ആയിട്ടുള്ളതൊന്നുമല്ല കുറച്ചുക്കൂടെ അവരുടെ സിമ്പിളായിട്ടുള്ള ഡിസൈനുകളായിരിക്കും കൂടുതലും നോക്കുന്നത് പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ നല്ലയൊരു ഫാഷൻ ഡിസൈനർ ആണ് ആൻറ്റിയോട് ഞാൻ ചോദിക്കും ആൻറ്റി ഇത് നല്ല ഡിസൈനാണോ